മോളിവുഡ് ടോളിവുഡ് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും ഫാഷൻ ട്രെൻഡുകൾ സ്വദീനിച്ചിട്ടുണ്ടോ എന്നുചോദിച്ചാൽ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട് അത് നമുക്ക് പല കോളേജിൽ നടക്കുന്ന പരുപാടികളിലായാലും ടി വിയിലുള്ള ഷോകളിലായാലും വ്യക്തമാണ് ഈ പല പ്രമുഖ കഥാപാത്രങ്ങളെ അനുകരിക്കാറുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നു രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീപിക പടുക്കോണിൻ്റെ വസ്ത്ര ശൈലി സൽമാൻ ഖാൻ്റെ ശൈലി എല്ലാവരും എല്ലാവരും അംഗീകരിക്കുകയാണ് കാരണം നമുക്ക് പല കോളേജ് പരുപാടികളിലും ഷോകളിലും ആയിട്ട് അവരെ അഭിനയിച്ച് കാണിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലും കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് എന്നു ചോദിച്ചാൽ അതിൽ ഒന്നാമത് ദൃശ്യം എന്ന മൂവിയാണ് സിനിമിയാണ് അപ്പോൾ അതൊന്നാമത് ആക്കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു അതേ പോലെ തന്നെ നല്ലവണ്ണം ത്രില്ലടിപ്പിച്ച ഒരു പടവും കൂടിയായിരുന്നു അതിൽ മോഹൻലാലിൻ്റെ കഥാപത്രവും വളരെ മികച്ച രീതിയിൽ അങ്ങേര് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെത്തന്നെ വേറൊരു സിനിമയാണ് ത്രീ ഇഡിയറ്റ്സ് അതിലെ കഥാപാത്രം അ അമീർ ഖാൻ്റെ കഥാപത്രവും അതു ഞാൻ കോളേജിൽ കയറുന്നതിനു ന മുൻപേ കണ്ടപ്പോഴും എനിക്കത് എൻ്റെ ലൈഫിൽ കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പല രീതികളിലായിട്ട് പിന്നെ ഒരു സിനിമയും ക്യാരക്ടറും പറയുകയാണെങ്കില് സിന്ദഗി നാ മിലേഗി ദൊബാറേല് ഹൃതിക് റോഷനും എനിക്ക് നല്ല നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതു നമ്മുടെ ജീവിതത്തെ പറ്റി പ കാര്യങ്ങളും ആ സിനിമയിലൂടെയും ആ കഥാപത്രത്തിലൂടെയും എനിക്കു പറഞ്ഞു തരുന്നതായിട്ട് തോന്നി അതുകൊണ്ട് ഈ മൂന്ന് പടങ്ങളിലെ കഥാപാത്രങ്ങളെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സിനിമയിലെ വസ്ത്രത്തിന് സമാനമായ വസ്ത്രങ്ങൾ ശ്രമിക്കാൻ സ്രിഷ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇ ചോദിച്ചാൽ കേരളത്തിൽ പ്രേമമിറങ്ങിയ കാലത്ത് എല്ലാവരുടെയും ഒരു ട്രെൻഡായിരുന്നു കറുത്ത ഷർട്ടും വെള്ള മുണ്ടും അപ്പോൾ അതും ഞങ്ങൾ ഞങ്ങളുടെ ഓണം പരുപാടികൾക്കും അല്ലാതെയുള്ള പരുപാടികൾക്ക് പോകുമ്പോഴും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കറുത്ത ഷർട്ടും വെള്ള മുണ്ടും അപ്പോൽ ഇതൊക്കെയാണ് മോളിവുഡും ബോളിവുഡ് ട്രെൻഡുകളെ പറ്റി എനിക്ക് പറയാനുള്ളത്